എനിക്ക് വിനീത് ശ്രീനിവാസനെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളും സിനിമകളും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകളും അതിലെ നല്ല പാട്ടുകളും ഉണ്ട് ഇപ്പം തന്നെ നമുക്ക് നോക്കാനാണെങ്കില് ദൃ ദൃഷ്ടം നല്ല രീതിയിലുള്ള പാട്ടുകൾ അദ്ദേഹം എഴുതാറും പാടാറും ഉണ്ട് അദ്ദേഹത്തിന്റെ സൗണ്ട് കേള്ക്കാന് ഒരുപാട് രസമാണ് ഇപ്പം മലയാള സിനിമയിൽ തന്നെ ഒരുപാട് മികച്ച സിനിമകളും ഒരുപാട് മികച്ച പാട്ടുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പം അദ്ദേഹത്തിന്റെ അനിയനും സിനിമ രംഗത്തേക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അദ്ദേഹത്തും നല്ല രീതിയില് പാട്ടുകളും അഭിനയിക്കാനും അറിയാം വിനീത് ശ്രീനിവാസന് ഒരു ഗായകനും കൂടി ആണ് സംവിധായാ സംവിധായകനും കൂടി ആണ് ഇപ്പം വിനീത് ശ്രീനിവാസന്റെ പാട്ട് കേൾക്കാത്തതായി മലയാളികൾ ആരുമില്ല അദ്ദേഹത്തിന്റെ പാട്ടുകളും ലൈനുകളും അദ്ദേഹത്തിന്റെ ശബ്ദവും കേൾക്കാന് ഒരുപാട് നല്ലതാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം മുതലേ അദ്ദേഹം സംഗീതം പാടാനും എഴുതാനും ചെയ്തിട്ടുണ്ട് എഴുതുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനിയനും അദ്ദേഹത്തിന്റെ പിതാവും അച്ഛനും എല്ലാവരും സിനിമ രംഗത്തില് എല്ലാവർക്കും അറിയപ്പെടണ അറിയപ്പെടുന്ന ആളുകളാണ് ശ്രീനിവാസന് വിനീത് ശ്രീനിവാസന്റെ ഗാനങ്ങള് ഒരുപാട് ഒരുപാട് നമ്മളെ കേട്ടിരിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകളാണ് ഇപ്പം നമുക്ക് ഇപ്പം തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ ശ്രീനിവാസന്റെ ഒരുപാട് പാട്ടുകളും അതിലെ ലൈനുകളും കേൾക്കാൻ ഒരുപാട് രസമാണ് അതെ വിനീത് ശ്രീനിവാസന്റെ പാട്ടും ഈ മലയാളത്തില് മാത്രമല്ല അത് നമുക്ക് തമിഴിലും ഒരുപാട് രീതിയില് അത് ഉണ്ടായിട്ടുണ്ട് തമിഴ് തമിഴ് നാട്ടിലും വിനീത് ശ്രീനിവാസന് പാട്ടുകള് ഒരുപാട് പാടിയിട്ടുണ്ട് ഒരുപാട് സിനിമകളിലും ഒരുപാട് ആള്ക്കാര്ക്കും വിനീത് ശ്രീനിവാസന്റെ സൗണ്ട് ഒരു ഡബ്ബിങ്ങിലൂടെ വിനീത് ശ്രീനിവാസന് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയില് തന്നെ അവർ പാട്ടുകൾ പാടാറും അത് അതിനു അതിനു പറ്റിയ ലൈനുകളും കമ്പോസിങ്ങും എല്ലാം നല്ല രീതിയിലാണ് കൊടുക്കാറുള്ളത് ഈ ഹൃദയം വിനീത് ശ്രീനിവാസന് തന്നെ സംവിധാനം ചെയ്ത ഹൃദയം എന്ന പടത്തിലും വിനീത് ശ്രീനിവാസന്റെ പാട്ടുകളാണ് അതിലും കൊടുത്തിരിക്കുന്നത് അതിൽ നല്ല കുറേ പാട്ടുകളുണ്ട് നമ്മുടെ ഇപ്പോൾ കോളേജ് ലൈഫ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു ആ സിനിമ ഒരു മാതൃകയാണ് സുഹൃത്ത് ബന്ധവും അതിലുപരി ഒരുപാട് ഇൻഫർമേഷൻ അതിൽ നിന്നും തരികയുണ്ട് നമുക്ക് തരുന്നുണ്ട് ഒരുപാട് നല്ല രീതിയിൽ തന്നെ അവർ ആ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് വിനീത് ശ്രീനിവാസന്റെ എല്ലാ രീതിയിലുമുള്ള എല്ലാ കഴിവുകളും വിനീത് ശ്രീനിവാസന് അതില് എടുത്തിട്ടുണ്ട് നല്ല ഒരു എഫര്ട്ട് ഉള്ള ഒരു സോങ് നല്ല ഒരു പാട്ടും അതിൽ നിന്നും ഉണ്ട് വിനിത് ശ്രീനിവാസന്റെ പാട്ടുകള് എന്ന് പറയുമ്പോള് പണ്ട് മുതലേ ഒരുപാട് പാട്ടുകള് കേൾക്കാറുണ്ട് അത് നമ്മള് കേട്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുഞ്ഞു തലമുറകള്ക്ക് വരെ വിനീത് ശ്രീനിവാസന്റെ പണ്ടത്തെ പാട്ടുകള് കേൾക്കുമ്പം അത് കേട്ടിരിക്കുന്ന കുട്ടികളുണ്ട് അപ്പം അത്രയ്ക്ക് നല്ല ഒരു കലാകാരനാണ് വിനീത് ശ്രീനിവാസന് അതിന്റെ ഇപ്പം തന്നെ വിനീത് ശ്രീനിവാസന്റെ ഒരുപാട് ആല്ബങ്ങള് ആല്ബങ്ങളും ഒരുപാട് രീതിയിൽ തന്നെ ആ ജീവിതം ജീവിതത്തിനെ പറ്റിയാണ് ഒരു ആ ഒരു ഒരു കൗമാരക്കാരന് പയ്യനെ പറ്റിയുള്ള രീതിയിലാണ് വിനീത് ശ്രീനിവാസന്റെ പാട്ടുകൾ ഇപ്പം ഒരുപാട് നല്ല ലൈനുകളും അതിലൊരുപാട് ഉപരി ഹ്യൂമന് ഇന്ഫോര്മേഷന് തരുന്ന കുറേ പാട്ടുകള് കൊണ്ടും സംഗീതം എന്ന് പറയുന്നത് വിനീത് ശ്രീനിവാസന്റെ ഒരുപാട് വിനീത് ശ്രീനിവാസന് ആദ്യം പാട്ടില് നിന്നാണ് വിനീത് ശ്രീനിവാസന് സിനിമയിലേക്ക് വന്നത് പാട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വിനീത് ശ്രീനിവാസനെ ആ ഒരുപാട് അറിയപ്പെടാനും ഒരുപാട് രീതിയില് സംവിധാനം ചെയ്യാനും ഒരുപാട് പേരിലേക്ക് പാട്ടുകള് എത്തിച്ചിട്ടുണ്ട് വിനീത് ശ്രീനിവാസന് പാട്ട് പാടാനും പാട്ട് കേൾക്കാനും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് വിനീത് ശ്രീനിവാസന് വിനീത് ശ്രീനിവാസന്റെ പാട്ടുകള് നമുക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളാണ് അതിലുപരി ആ പാട്ടുകള് കേട്ടിരിക്കുമ്പോള് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫീലാണ് ആ പാട്ടുകള്ക്ക് ആ പാ ഒരുപാട് ആള്ക്കാർ ആ പാട്ടുകള് വിനീത് ശ്രീനിവാസന്റെ പാട്ട് പാട്ടുകള് തിരിച്ചു പാടാന് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് വൈറലായ ഹിറ്റ് ആയ സോ പാട്ടുകളാണ് വിനീത് ശ്രീനിവാസന്റെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംവിധാനം മലയാളത്തില് വളരെ ചുരുങ്ങിയ കുറച്ചു സിനിമകളെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ പക്ഷെ അത്രയും കുറച്ചു സിനിമകളായാലും ആ സിനിമകളെല്ലാം വളരെ സൂപ്പര് ഹിറ്റ് ആയിട്ടാന്നാണ് പിന്നെ പോ പോയിട്ടുള്ളത് അതില് വളരെ നല്ല രീതിയില് തന്നെയാണ് സംവിധായകന് നമ്മുടെ വിനീത് ശ്രീനിവാസന് ചെയ് അതില് എഫേർട്ട് എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ സിനിമയില് അദ്ദേഹം തന്നെ പാടി ഒരുപാട് നല്ല പാട്ടുകള് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല ലൈനുകളും ഒരുപാട് നല്ല സിനിമ കഥകളും ഒരുപാട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താണ് എന്താണ് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിന്റെ സൗഹൃദം അതെല്ലാം ഒരു സിനിമ രൂപത്തില് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാട്ടുകള് എന്ന് വെച്ചു കഴിഞ്ഞാല് പ്രേമം പ്രേമിക്കുന്നവര്ക്ക് നല്ല രീതിയില് തന്നെ ഒരു ഒരു ഒരു ഫീൽ കൊടുക്കാന് പറ്റിയ പാട്ടുകളാണ് വിനീത് ശ്രീനിവാസന്റെ പടം പാട്ട് ഇപ്പം കോളേജ് ലൈഫുകളൊക്കെ എന്താണെന്ന് നമ്മുടെ ആ ഹൃദയം മൂവി കണ്ടവരുണ്ടെങ്കില് അവര്ക്കറിയാം അതീൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം വിനീത് ശ്രീനിവാസന് അദ്ദേഹത്തിന്റെ സംവിധാന മികവ് കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇപ്പം അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ സംവിധാനവും എല്ലാം കൊണ്ടും അദ്ദേഹം ഒരു നല്ല ഒരു ഒരു ഒരു സംവിധായകനും സംഗീതത്തനുമായിട്ടാണ് വിനീത് ശ്രീനിവാസന് പിന്നെ എനിക്കും യേശുദാസിനെ ഇഷ്ടമാണ് യേശുദാസിന്റെ സ സൗണ്ട് എന്ന് പറയുന്നത് നല്ല ശബ്ദമാണ് യേശുദാസിന്റെ പണ്ട് മുതലേ യേശുദാസിന്റെ സൗണ്ട് എന്ന് പറയുമ്പോള് ഒരു പ്രത്യേക സൗണ്ടാണ് നമ്മുടെ സംഗീതത്തിന്റെ ഒരു മഹാസാഗരം സാഗരം ആണ് യേശുദാസ് ഇപ്പം നമ്മളിപ്പം തന്നെ ഇപ്പം അയ്യപ്പന് അയ്യപ്പ സീസണ് ആണ് ഇപ്പം ഇപ്പം തന്നെ ഒരു ഹരിവരാസനം കേള്ക്കുമ്പോൾ അത് യേശുദാസിന്റെ വോയിസിൽ കേള്ക്കുമ്പോൾ അത് വളരെ നല്ല ഒരു കുളിര്മയാണ് അതില് നിന്ന് കിട്ടുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് യേശുദാസും അദ്ദേഹത്തിന്റെ മകന് യേശുദാസിന്റെ മകനും ഇപ്പം നല്ല രീതിക്കാണ് അദ്ദേഹത്തിന്റെ സൗണ്ട് ഒരുപാട് രീതിയില് അദ്ദേഹവും നമുക്ക് സംഗീതം ഒരുപാട് സംഗീതങ്ങള് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗീതങ്ങള് അദ്ദേഹവും യേശുദാസും നമുക്ക് തന്നിട്ടുണ്ട് പണ്ട് മുതലേ ഉള്ള പണ്ടത്തെ സിനിമകളില് എല്ലാം മിക്ക സിനിമകളിലും യേശുദാസ് ആണ് പാടിയിരിക്കുന്നതും പിന്നെ ഒരുപാട് ഇപ്പം പറയുക പേര് പറഞ്ഞു പറയാനാണേ ഒരുപാട് തന്നുണ്ട് നമ്മുടെ മലയാള സിനിമകളില് പിന്നേ ഇതേ പോലെ പാട്ടു പാടുന്നവരും ഒരുപാട് മികച്ച കലാകാരന്മാരും നമ്മുടെ കേരളത്തില് തന്നെ നമ്മുടെ മലയാള സിനിമയില് ഒരുപാട് പാട്ടുകള് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് നടന്മാരും സംവിധായകന്മാരും ഉണ്ട് എന്തുകൊണ്ടും നമ്മുടെ കേരളത്തില് ഒരുപാട് കലാകാരന്മാരൊള്ളത് നമൂക്കൂടി അഭിമാനമാണ് നല്ല പാട്ടുകളും നല്ല നല്ല ലൈനുകളും നല്ല സിനിമകളും സമ്മാനിക്കുന്ന ഒരുപാട് നമ്മുടെ കേരളത്തില് തന്നെയുള്ള ഒരുപാട് നടന്മാരും സംവിധായകന്മാരും ഇന്ന് ഉണ്ട് ഇപ്പോഴത്തെ പാട്ടുകള് ഇപ്പം ഇപ്പം തന്നെ നമുക്ക് ഈ സോഷ്യല് മീഡിയ വന്നത്തോളം കാരണം ഇപ്പോൾ ഒരു പാട്ട് ഉണ്ടാക്കി പാടാന് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റുഡിയോയില് പോയി കഷ്ടപ്പെടേണ്ട ആവശ്യം ഇല്ല നമ്മുടെ എല്ലാവരുടെയും കൈയ്യിൽ സ്മാര്ട്ട് സ്മാര്ട്ട് ഫോണ് ഉള്ളതിനാല് ഇപ്പോൾ ഒരു വീഡിയോ റെക്കോര്ഡ് ചെയ്തു പാടി നമുക്ക് ഫോണിലേക്ക് വീഡിയോ സോഷ്യല് മീഡിയയിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ ആ നിമിഷ നേരം കൊണ്ട് അത് എല്ലാവര്ക്കും കേൾക്കാന് പറ്റുന്ന രീതിയില് എല്ലാവരും അതില് കേട്ടു അവരുടെ അഭിപ്രായം പറയാന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം നമുക്കും ഉണ്ട് സ്മാര്ട്ട് ഫോണില് അതിനാല് നമുക്ക് ഇപ്പം ഒരു പാട്ട് ഉണ്ടാക്കി ഇപ്പം ഇപ്പം പുതിയ ഗായകന്മാര്ക്കും ഇതേപോലെ ഒരുപാട് ഇപ്പം പൈസ മുടക്കി ഒന്നും ഒരു സോങ് ചെയ്യേണ്ട കാര്യം ഇല്ല കയ്യിൽ എല്ലാ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് ഒരു ചെറിയ രീതിക്കു തന്നെ അവര്ക്കും ഇത് പാട്ടുകള് എല്ലാവരുടെയും മുൻപിലേക്ക് എത്തിക്കാന് കഴിയുന്നതാണ് വളരെ മികച്ച ഒരു നല്ല ഒരു കാര്യമാണ് ഈ സ്മാര്ട്ട് ഫോണ് സ്മാര്ട്ട് ഫോണ് ഉള്ളതിനാലാണ് ഇതേ പോലെ കാര്യങ്ങള് ഒക്കെ നടക്കുന്നത്